ഇപ്പോൾ ഞാൻ സാധനങ്ങൾ വരക്കാനാവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം പേന പേന പെൻസിൽ പിന്നെ ലൈക് സ്കെച്ച് പെൻസ് അതുപോലെ കളർ എല്ലാം ഞാൻ വാങ്ങിക്കുന്നത് മിക്കവാറും ഓൺലൈൻ മാർക്കറ്റ് ഇപ്പം ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ മാർക്കറ്റുകളിൽ നിന്നായിരിക്കും ഞാൻ മിക്കവാറും മാർ വാങ്ങിക്കുന്നത് പിന്നെ ഞാൻ ആശ്രയിക്കുന്നത് ഇപ്പം നമ്മുടെ കേരള ഗവൺമെറ്റിൻ്റെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട് പോലീസിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട് തിരുവനന്തപുരത്ത് അതുപോലത്തെ സ്ഥാപനങ്ങളെ അവിടെ ഒരൻപത് ശതമാനം വിലക്കിഴിവിലൊക്കെ നമുക്ക് ആർ ആർട്ട് സപ്ലയൻസ് ലൈക് നമ്മുടേ വരക്കാനാവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനിഷ്ടപ്പെടുന്നത് ഓയിൽ കളറും പിന്നെ ഓയിൽ പേസ്റ്റിൽസുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വരക്കാൻ എൻ്റെ വരയ്ക്കുന്നത് പോട്രേറ്റ്സും അതുപോലെതന്നെ സീനറി ഒക്കെയാണ് അപ്പം അതിന് ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് ഓയിൽ പേസ്റ്റിൽസും അല്ലെങ്കിൽ ഓയിൽ ഓയിൽ പെയിൻറ്റുമാണ് അപ്പം ഞാനതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫാബ്രിക്ക് കാസ്റ്റിലിൻ്റെയും പിന്നെ കാമലിൻ്റെയും പ്രോഡക്ട്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനും ഞാനാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും അത് എപ്പോഴും കേമൽ അല്ലെങ്കിൽ ഫാബ്രിക്ക് കാസ്റ്റിൽസിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാനെ ഞാൻ പറയത്തുള്ളു